എൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മൊബൈൽ ഫോണാണ് അത്യാവശ്യം നല്ല മൊബൈൽ ഫോണാണ് യൂസ് അതായത് ഞാന് മേടിച്ചത് ഫ്ലിപ് കാർട്ട് വഴിയാണ് ഞാൻ മേടിച്ചത് പിന്നെ ഞാനിങ്ങനെ അതായത് ഇ എം ഐ ഇട്ട് മേടിച്ചതാണ് ഫ്ലിപ് കാർട്ടിൽ നിന്ന് നമ്മള് കടയിലൊന്നും പോയില്ല അപ്പം പിന്നെ നല്ലൊരു നല്ലൊരു ഫോണാണ് അത്യാവശ്യം നല്ല ഫോണാണ് നല്ലേ മറ്റേ ഇതൊക്കെയാണ് പിന്നെ നൂറ്റി ഇരുപത്തിയഞ്ച് ജി ബി റാം ഉണ്ട് സിക്സ് ജി ബി റോം ഉണ്ട് എല്ലാം നല്ല നല്ല അത്യാവശ്യം നല്ല ഫോണാണ് വലിയ ഹാങ്ങ് ഒന്നുമില്ല നമുക്ക് നല്ലവണ്ണം വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ വീഡിയൊ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് അതായത് നല്ലവണ്ണം നമുക്കു വീഡിയോ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് നെറ്റിൻ്റെ റേഞ്ച് കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ട് അത്യാവശ്യം നല്ല ഫോണാണ് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ആകെ പതിനയ്യായിരം രൂപക്ക് മേടിച്ച ഫോണാന്ന് അപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമുണ്ടായിരുന്നില്ല കാരണം ഇപ്പോൾ എല്ലാവരുടെയും കൈയിലും ഐഫോണും കാര്യങ്ങളൊക്കെയല്ലെ ഈ ഫോണിനൊന്നും വലിയ ഒന്നുമുണ്ടാകില്ല വിചാരിച്ചു നല്ല അടിപൊളി ഫോണാണ് നല്ല യൂസേജ് ആണ്